ഇപ്പോൾ കായികം തൊഴിലായിട്ട് ആക്കിയ ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കാരണം സുഷോബ് എന്ന് പറഞ്ഞ ഒരു പുള്ളി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് തന്നെ ക്രി ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് അവൻ എന്തു ചെയ്തു സെലെക്ഷൻ ഒക്കെ കിട്ടി ഇപ്പം നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആളൊക്കെ ആയിട്ടുണ്ട് അപ്പം അവന് എന്താ പറയുക ചെറിയ ചെറിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഇപ്പോൾ ഒരു കളി ജയിച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ പ്രൈസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അപ്പം അതിൽ നിന്ന് അവനും വരുമാനം ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച നിതിൻ പറഞ്ഞ ഒരുത്തൻ അപ്പോൾ അവൻ ഫുട് ബോൾ കളിക്കാനൊക്കെ പോയിട്ട് അതിൽ നിന്ന് ഇപ്പം വരുമാനം ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കാരണം അവരെ കളിയിൽ നിന്നും ഇത്രയും പ്രൈസ് കിട്ടും അപ്പം അതിനകത്ത് നിന്നും ചെറിയ ഒരു എമൗണ്ട് ഇവനും കിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ജിനീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ അപ്പം അവനും ഇതേപോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവനും ഇതേപോലെ ഒക്കെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ട് നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഇപ്പം കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ ബഹറിനിൽ ദുബായിൽ അങ്ങനെ ഒക്കെ പോയി കളിക്കാനുള്ള അവസരങ്ങളൊക്കെ അവന് ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കളിച്ച് എന്താ പറയുക തൊഴിലാക്കി മാറ്റിയ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്